മലയാള ഭാഷയിലുണ്ടായ മാറ്റങ്ങള് അത് വലിയൊരു മാറ്റങ്ങള് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഒരു ഒരു ഭാഗം ഭൂരിഭാഗം ആൾക്കാര് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് അങ്ങനെയുള്ള അന്യഭാഷകളൊക്കെയാണ് സംസാരിക്കുന്നത് അത് നമ്മുടെ കേരളീയ കേരളത്തിലെ ആൾക്കാരത് അതില് കുറേ എണ്ണങ്ങളുണ്ട് അവർക്കൊന്നും മലയാളം സംസാരിക്കാനറിയാത്ത രീതിയിലൊക്കെയായി ഇപ്പോഴത്തെ സമൂഹം ഒരു കുറച്ച് ഒരു അഞ്ച് ആറ് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് മലയാളമെന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉണ്ടാകുമോയെന്ന് തന്നെ മലയാളികൾക്ക് ഡൗട്ടായി വരുന്ന ഒരു കാലമാണ് ഇപ്പം ഇതിനിപ്പോള് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ മാതൃഭാഷ നമുക്ക് ഏറ്റവും വലുത് തന്നെയാണ് എവിടെ പോയാലും നമ്മള് സംസാരിക്കേണ്ടതും അതുതന്നെയാണ് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മള് മറ്റുള്ള ഭാഷകളൊക്കെ സംസാരിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും മലയാളഭാഷയെ നമ്മള് ഒരിക്കലും വേർപ്പെടുത്താനോ അല്ലെങ്കില് അതിനെ അടിച്ചമർത്തി വേറെയൊരു വഴി തിരിച്ചുവിടാനോന്നും നമ്മള് ശ്രമിക്കാൻ പാടില്ല മലയാളഭാഷയാണ് നമ്മുടെ സ്വന്തം ഭാഷ